മറ്റു ഗ്രഹങ്ങളിൽ അടുത്ത് എന്ന് പറഞ്ഞാൽ ജീവൻ ഗ്രഹങ്ങൾക്ക് മാത്രമല്ല എല്ലാ ലോകത്തുള്ള എല്ലാ വസ്തുക്കൾക്കും ജീവനുള്ളത് തന്നെയാണ് ഗ്രഹങ്ങൾക്ക് ജീവനുണ്ട് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് ആകാശത്ത് ഒരുപാട് ഗ്രഹങ്ങളുണ്ട് ആ ഗ്രഹങ്ങൾ പേരു തന്നെ നമ്മൾ പഠിച്ച് വെക്കുന്നത് ഒക്കെ നല്ലതാണ് ഗ്രഹങ്ങളെ കുറിച്ച് പറ്റി പഠിക പഠിക്ക പഠിപ്പിക്കുന്നത് തന്നെ നമ്മൾ സ്കുളികളിലും കോളേജുകളിലും ഒക്കെ നമുക്ക് അത് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഗ്രഹങ്ങളെ കുറിച്ച് പിന്നെ ഗ്രഹങ്ങൾക്ക് ജീവനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജീവനുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത് കല്ലിനും മുള്ളിനും വരെ ജീവനുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതേപോലെ തന്നെ ഈ ഗ്രഹങ്ങൾക്കും ജീവനുണ്ട് എന്നാണ് ഞാനും വിശ്വസിക്കുന്നത് ഓരോ നമ്മളെ പഠിപ്പി നമ്മളെ ബുക്കുകളിൽ ആണെങ്കിലും നമ്മൾ പഠിച്ച ബുക്കുകളിൽ ഒക്കെ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി ജീവനുള്ള ഗ്രഹ ജീവനില്ലാത്തതായിട്ട് ഒരു വസ്തുക്കളും ഇല്ല എന്നാണ് അതിലൊക്കെ പറയുന്നത്